ആ അതെലോ ആരായിരുന്നു ആണോ ഹോ ഹോ എവിടുന്ന എവിടുന്ന വിളിക്കണേ ഇടുക്കീന്നാ ല്ലേ ഞാ കൊ ഞാ കൊറച്ച് തെരക്കാ യ്യോ ഓക്കെ പറ കൊഴപ്പില്ല പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ അയ്യോ അയ്യോ ൻ്റെ അയ്യോ അതിൻ്റെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്ന് പറയോ എനിക്ക് കൊറച്ച് പ്രോഗ്രാമും കൊറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നെ കൊറച്ച് ബിസിയായിരുന്നു ആ ഓക്കേ അല്ലെങ്കി ഒരു കോളേജ് കുട്ടിക്കാനത്ത് ഒരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കി നമ്മടെ മറ്റേ മഹാരാജേ രണ്ട് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡേറ്റെന്ന് കൺ ഡേറ്റെന്നെക്കായിരുന്നു

തിങ്കളാഴ്ച അത് ഫിക്സ്ഡാണോ പ്രോഗ്രാമ് അവിടെ ഫിക്സ്ഡാണോ അല്ലെങ്കി അതിന് വല്ല വ്യ മാറ്റം കാര്യങ്ങളും വല്ലോം വരാൻ ചാൻസൊണ്ടോ ഇല്ലല്ലേ അപ്പം ത് നമുക്ക് ഇത് ഇതെങ്ങനെയാ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റൊന്ന് പറയാമോ എങ്ങനെയാ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇപ്പൊ എനിക്ക് എൻ്റെ ഇപ്പൊ അങ്ങനെ എൻ്റെ കൊറെ സിനിമകളൊക്കെ കണ്ടിട്ട് കാണുവാരിക്കുവല്ലോ ആ അപ്പം നമുക്കിപ്പം എനിക്ക് ട്വൻ്റി ഫൈവ് ട്വൻ്റി വൺ ഏജാണ് ഇപ്പ ഞാൻ ഒരു എനിക്കൊരു ഞാനൊരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് ഞാൻ ഈ സിനിമ ഫീൽഡി കേറി തുടങ്ങിയതാണ് അപ്പം ഏകദേശം ഇപ്പൊരു ടെൻ ഇയേഴ്സായി ടെനിയേഴ്സിപ്പം റ്റെന്നിഴേസായി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ടെന്നിയെസിൻ്റെ സെലിബ്രേഷൻ നെക്സ്റ്റ് ഇയർ ഒണ്ട് അപ്പം എൻറ്റൊരു കാര്യംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഞാനിപ്പം ഇപ്പം എപ്പം എൻറ്റൊരു ഞാൻ പഠിച്ച സ്കൂളിൽ മോൺകോഡ് സ്കൂളിൻ്റെ അടുത്തൊരു പ്രോഗ്രാം ചെയ്ത ചെറിയൊരു ഒരു ഇതിൽ നിന്ന് കേറിയതാണ് അപ്പതിൻറ്റൊരു പേര്ല് ആ പ്ലസ് ടു ഞാൻ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞാൻ സെവൻത്തി പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് എനിക്ക് ചെറിയ റോളാണ് അവിടുന്നാണ് എൻറ്റൊരു കരിയർ സ്റ്റാട്ടായത് ആ ഓക്കെ ഓക്കെ നോട്ടേയ്തോ ആ ഓക്കെ ഇത് നോട്ടെയ്തോ നോട്ടെയ്തൊ നോട്ടെയ്തൊ ആ എനിക്കൊരു ഞാൻ ഏഴാം ക്ലാസിൽ പന്ത്രണ്ട് ഒരു ട്വെൽവ് തേർട്ടീൻ ഇയേഴ്സ് ഉള്ളപ്പോഴാണ് ഞാൻ കെ പി സി ലിസ്റ്റില് മുന്നില് വരുന്നത് ആ ഓക്കെ ആ അപ്പോ അത് കഴിഞ്ഞിട്ട് എൻറ്റൊരു എയ്റ്റ് ണയൻ ഇയേഴ്സ് നല്ലൊരു കരിയർ ആയിരുന്നു എനിക്ക് പിന്നെ കേറിയപ്പത്തേന് നല്ലൊരു നല്ല അത് കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ല റോൾന്ന്ച്ചാ ഒരു ഒരു മോഹൻലാലിൻ്റെ ഒരു മോനായിട്ട് ഒരു ഇത് കിട്ടി അത് ദൃശ്യംന്ന് പറഞ്ഞ സിനിമ ദൃശ്യം ആ അപ്പം ആ എൻ്റെ മെയിൻ ഐ മീൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊരു മെയിൻ ക്യാരക്ടർ സ്ക്രീനിൽ നല്ലൊരു കാരക്ടർ വരുന്നതാ ഫസ്റ്റ് ഫിലിം അതായിരുന്നു നമുക്ക് നല്ലൊരു ക്യാരക്ടർ ഫസ്റ്റ് ഫിലിം വരുന്ന അതായിരുന്നു അതായിരുന്നു എനിക്ക് ആ ആ ഇതിൽ ബെസ്റ്റൊരു ബെസ്റ്റാക്ടർ അവാർഡ് വരെ കിട്ടിയാരുന്നു ആ ഫിലിമില് എനിക്ക് ആ മറ്റേ മലയാളം ഫിലിം അവാഡ്സ് അപ്പം അതിന് അപ്പം വേറൊരു അവാർഡും കൂടി ഏറ്റോം പ്രായം കുറഞ്ഞ ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയൊരു അവാർഡും കൂടി കിട്ടിയായിരുന്നു ആ സമയത്ത് അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ സിനിമയുണ്ടാവും അത് ഞാൻ രണ്ടു മലയാളം തന്നെ മെയിൻലി ഫോക്കസെയ്യുന്ന മെയിനായിട്ട് മലയാള സിനിമ തന്നെയാണ് അപ്പം പയങ്കരൊരു സത്യം പറഞ്ഞ ഇപ്പ ഇതിൻ്റെടക്ക് പഠിത്തം കാര്യങ്ങളും ഒന്നും അങ്ങനെ നടക്കുന്ന് പക്ഷേ ലൈഫ് ഭയങ്കര എൻജോയബിളാണ് കരിയർ കുഴപ്പൂല്ലാതെ പോകുന്നു പക്ഷേ നമ്മക്ക് ഇല്ല ഇല്ല നമ്മക്ക് അതിലോട്ട് ആയി നാഷണൽ ലെവൽ അച്ചീവ്മെൻറ്റായിട്ടില്ല ഇതുവരെ ആ ഒരു നോമിനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇല്ല നമ്മക്കത് ലിസ്റ്റി കെടപ്പേ ഉള്ളൂ അയിന് റിസൾട്ട് കാര്യങ്ങളും വരുന്നേയുള്ളൂ ആയില്ല ആയില്ല അത് വരുന്നേയുള്ളൂ ഈ ദിസ് ഇയർ ലാസ്റ്റ് പബ്ലിഷീയ്യുന്നാ പറഞ്ഞിരിക്കുന്നെ അല്ല എനിക്ക് കാര്യം അങ്ങോട്ട് വ്യക്തായിട്ടില്ല എന്താ ഉദ്ദേശിച്ചേ ഓക്കെ ഓക്കെ അപ്പം എനിക്ക് പേഴ് ആ ഓ ആ ഓ അത് ശെരി പേഴ്സണലായിട്ട്ന്ന് പറഞ്ഞാ ഞാനിപ്പം ഡിഗ്രി ഫസ്റ്റ് ഞാ ഡിഗ്രി ചെയ്യുന്നു തേർഡ് ഇയർ ആൻറ്റ് സോഷ്യൽ വർക്കറാണ് പഠിക്കുന്നെ കുട്ടിക്കാനത്ത് ആ ഓക്കെ അപ്പം ഞാൻ കുട്ടിക്കാനത്ത് തേഡിയര് പഠിക്കുന്നു ബിഎ സോഷ്യൽ വർക്കാണ് എൻ്റെ കോഴ്സ് ഞാൻ അപ്പം പഠിത്തവും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഓ ഇതിൻ്റെ പുറകെ ഓരോ ഇതൊക്കെ ആയിട്ട് നടക്കയാണ് ഇപ്പം വീട്ടിലെനിക്ക് അപ്പനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് പേഴ്സണലി ഞാൻ ഇടുക്കിക്കാരനാണ് അപ്പം പിന്നേ ഹോബിസ്ന്നൊക്കെ പറയുമ്പൊ ഞാൻ ഈ നമ്ക്കീ ഫിലിം ഫിലിം ഫീൽഡിൽ ആയേം കൊണ്ട് പലേ സ്ട്രെസ്സും കാര്യങ്ങളും ഇപ്പോരോ ഇപ്പൊ ഞാൻ റിയൽ ലൈഫിൽ ഞാൻ ശരിക്കും പറഞ്ഞാ അത് നോ ചെയ്യുന്നുണ്ട് കാരണം നമ്മക്ക് ഓരോ ഷൂട്ടിംഗ് ചെലപ്പൊ ഡെ നൈറ്റായിരിക്കും നൈറ്റ് ഷിഫ്റ്റായിരിക്കും ചെലപ്പം ഒരു ഇത്ര കിലോമീറ്റർ ഭാഗത്ത് ഇട്ടേക്കാ അട്ത്ത് ഷൂട്ടിംഗ് അങ്ങനെ പയങ്കര ബുദ്ധിമുട്ടൊരൂ ലൈഫ് സ്റ്റൈലാണ് ഇപ്പൊ നെലവിൽ കടന്നുപോയിക്കൊണ്ടിരി കാരണം ഒരു ബിസിയാണ് സത്യം പറഞ്ഞാ ഈ ഒരു ഈ സത്യം പറഞ്ഞാ വൺ ഒരു റ്റു ഇയേഴ്സായിട്ട് ഭയങ്കര ബിസിയാണ് ഞാൻ ആ എന്നുപറഞ്ഞാ പ്രസറ്റ്ലി ഇപ്പൊരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്ക്യാണ് ഇപ്പം അപ്പോ അപ്പം പിന്നെ സ്ട്രെസൊക്കെ നമ്മള് അത്യാവശ്യം നമ്മളൊരു ഡാൻസൊക്കെ സ്ട്രെസൊക്കെ വരുമ്പൊ രാവിലെ ഒരു നല്ലൊരു മോണിങ്ങ് വാക്കിങ്ങിന് പോകും അത് നല്ലപോലെ നല്ല പാട്ടുകള് കേക്കും ബേസിക്കലി ഞാൻ അങ്ങനെയാണ് സ്ട്രെസ്സിനെ മെയിൻ്റയിൻ ചെയ്യുന്നത് പിന്നെ നല്ലായിട്ട് ഞാൻ ഒറങ്ങും ഇങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാ എൻറ്റൊരു സ്ട്രെസ്സിനെ മെയിൻ്റയിൻ ചെയ്തു എൻറ്റൊരു ഡയറ്റ് കൊണ്ടു പോന്നത് പിന്നേ ഈ പിന്നെ ഈ പ്ലസ്ന്ന് പറഞ്ഞോണ്ടെങ്കി ഇപ്പം ഡിഗ്രി പാസ് ഔട്ടായിട്ട് പിന്നെ പിജി വല്ലോം എടുക്കും ഫിലിം ബേസ്ഡ് എന്തെങ്കിലും എടുക്കാന്നോർത്തിരിക്കുന്നു ആ ആ ആ ഓക്കേ കൺഫോം ചെയ്തോ കൺഫോം ചെയ്തോ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സാപ്പിലൊന്ന് ഡീറ്റെയിൽ ഇട്ടേക്കണേ ആ ഓക്കെ ഓക്കെ എനിക്ക് വാട്ട് എനിക്കൊരു മാക്സിമം ഒരു ഫൈവ് ഒരൂ ത്രീ ടു ഫൈവ് മിനിറ്റ്സ് തന്നാ മതി സ്പീച്ചിനു വേണ്ടിയെ ആ ഓക്കെ ഓക്കെ അപ്പം ആ ഓ ഓക്കെ ഓക്കെ ഇപ്പം അതിൻ്റെ ടൈം ടുഡേയ്സ് ഉള്ള പ്രോഗ്രാമ്സാണോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ അതിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പ്രൊവൈഡെയ്യോ എങ്ങനെയാ അതിൻറ്റെ ബാക്കിയുള്ള കാര്യങ്ങള് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓ ഫൈൻ ഓക്കെ കൊഴപ്പില്ല കൊഴപ അപ്പെനിക്കതിൻ്റെ ഒരു ലിസ്റ്റും പ്രോഗ്രാന്നു ഒന്നെനിക്ക് വാട്സാപ്പ് ഇട്ട് വെക്കാവോ ആ ഫീസ് അത് കൊഴപ്പില്ല അത് എന്തേലും ഒക്കെ തന്നാ മതി പിള്ളാര് കൊഴപ്പില്ല അത് കൊഴപ്പില്ല അതെന്തേലും പിഎ ആയാലും ട്രാവൽ എക്സ്പെൻസായിട്ടെന്തേലും കൊടുത്താ മതി ഓക്കെ ഓക്കെ പേര് പേര് പേരെങ്ങനായിരുന്നു പേരെങ്ങനായിരുന്നു ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് അത് വാട്സപ്പിൽ ഒന്ന് അയച്ചാ മതി ഡീറ്റെയിൽസേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പവടെ വരുമ്പൊ അവടെ ഓക്കെ ഓക്കെ ഗൂഗിൾ മീറ്റാണോ ഓക്കെ എങ്കിൽ അതിൻറ്റൊരു ലിങ്കെനിക്ക് വാട്സപ്പി ഷെയറെയ്താമതി ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ ഓക്കെ വെൽകം